നമ്മടെ പ്രദേശത്തൊക്കെ ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നല്ലവണ്ണം കിളികളും അതായത് പണ്ട് ഞാൻ എൻ്റെ വീട്ടില് ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് കിളികളൊക്കെ ഇങ്ങനെ അതായത് വരാറുണ്ട് പക്ഷെ ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കില് കിളികൾ ഒക്കെ വളരെ കുറവാണ് വരുന്നത് കാരണന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിനൊക്കെ കുറെ ഒക്കെ വംശനാശം കാര്യങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി അപ്പം ആദ്യ കാലത്തില് ഒക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് കിളികൾ ഒക്കെ വരാറുണ്ടായിരുന്നു അതായത് കണ്ടിരിക്കാൻ തന്നെ രസമാണ് നമുക്ക് വേണമെങ്കിൽ പരുന്തുകളെ ഓ ആദ്യോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കി കോഴികുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് പരുന്തൊക്കെ വന്നിട്ട് കുറെ പ കുട്ടിൻ്റെ കോഴി കുട്ടികളെ ഒക്കെ പിടിച്ചോണ്ട് പോകുവായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പരുന്തിനെ പോലും കാണാൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് വരുന്നത് പിന്നെ ചെറിയ ചെറിയ പ്രാവ് പ്രാവ് പ്രാവും കുറവാണ് ആദ്യമൊക്കെ പ്രാവ് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രാവ് ചെറിയ ചെറിയ പ്രാവുകള് വളരെ കുറവാണ് പ്രാവിനൊക്കെ കാണാൻ അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രാവിനെ കണ്ടിരിക്കാനാണ് അതിനെ കാണാൻ പ്രത്യേക ഒരു ഭംഗി അല്ലേ പിന്നെ നമ്മള് വെള്ളരി പ്രാവിനെ ഒക്കെ വീട്ടില് വളർത്തൂലേ വീട്ടില് വളർത്തുന്നത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല അവരിങ്ങനെ നല്ല അതായത് സ്വതന്ത്രനായിട്ട് അവര് നടക്ക നടക്കാൻ ആണ് എനിക്ക് താല്പര്യം കാരണം പിന്നെ അത് കാണാൻ തന്നെ നല്ലൊരു രസം ആണ് ആ പ്രാവക്കെ ഇങ്ങനെ നടക്കണ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രാവിനെയാണ്